ഹലോ ആ ഇത് ആ ദേവനന്ദായിരുന്നു ഇത് വിശ്വജ്യോതി കോളേജ് അല്ലായിരുന്നോ ആ സാർ ഞാനവിടെ മെക്കാ ആ ഞാനവിടെ മെക്കാനിക്കൽ എൻജിനീയറിങ് നോക്കാൻ വേണ്ടി സാറിനെ വിളിച്ചതായിരുന്നു അപ്പം കിട്ടിയില്ലായിരുന്നു ആ ആ അപ്പം ഞാൻ ഇപ്പം മെക്കെടുക്കണോ അതോ ഇലക്ട്രിക്കൽ എടുക്കണോ എന്ന് ആലോചിച്ചാണ് ഞാൻ സാറിനെ വിളിച്ചത് ആ ആ അങ്ങനെ സാറേ ഇപ്പം ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് എന്തേലും ജോലി സാധ്യത കിട്ടുമോ ഇപ്പം എല്ലാവരും പറയുന്നുണ്ടല്ലോ മെക്കാനിക്കൽ എൻജിനീയറിങ് പഠിച്ചിട്ട് കാര്യം ഇല്ലെന്ന് ആ ആ അല്ല അപ്പം ഇതിന് എത്ര സെം ഉണ്ട് സാർ എട്ട് സെമ്മോ അപ്പം നാല് വർഷം ആ അത് സർ ഇതിൻ്റെ ഈ ഡോണേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെം ഫീസ് എത്രയാണ് വരുന്നത് ആ അപ്പോൾ ഈ ഞങ്ങൾ ഇപ്പം എന്നത്തേക്കാണ് കോളേജിലോട്ട് വരേണ്ടത് അഡ്മിഷൻ എടുക്കാൻ ആ ആ ആ പിന്നെ സാറേ അതുപോലെ കോളേജിൽ എങ്ങനെയാണ് പരിപാടി ഒക്കെ ഉണ്ടോ

ആ ആ ആ അതല്ല ഓട്ടോ ഷോ ഒക്കെ ഉണ്ടോ ആ ആ പിന്നെ സാർ സ്ട്രിക്റ്റാണോ കോളേജ് ആ ആ ആ സാറേ അപ്പം ഇതുപോലെ ഞാൻ ഇപ്പോൾ എൻ്റെ പേരൻറ്റിനെയും കൊണ്ട് വരണമല്ലൊ അഡ്മിഷൻ എടുക്കാൻ ആ അപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് നിർബന്ധം ഉണ്ടോ എനിക്കിപ്പം പുറത്ത് പി ജി എടുക്കാനായിരുന്നു ആ ആ സാറേ ഏത് സെം തൊട്ടാണ് പ്ലേയ്സ്മെന്റ് ഉള്ളത് ആണോ സാറേ അപ്പം ലാബ് ഒക്കെ എങ്ങനയാണ് ആ ആ ഹാ എൻ്റെ ആ ആ അതൊക്കെ ആ ആ എങ്കിൽ ഓക്കെ സാർ ഞാൻ വിളിക്കാം എന്തെങ്കിലും ചോദിക്കാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വിളി വിളിക്കാം ആ ഓക്കെ ഓക്കെ ഓക്കെ